ഞാൻ സ്റ്റേജിൽ പാടിയിരിക്കുന്ന ഒരേയൊരു അവസരം ദേശീയ ഗാനം പാടുമ്പോഴാണ് അത് കോറസ്സ് ആയതുകൊണ്ട് എനിക്ക് സ്റ്റേജിൽ ഭയമൊന്നും തോന്നിയിട്ടില്ല പിന്നെ സ്റ്റേജിൽനിന്ന് ഓഡിയൻസിലേക്ക് നോക്കുമ്പഴത്തേക്ക് ചെറിയ ഒരു ഭയം എനിക്ക് തോന്നിയിരുന്നു തോന്നി ഇപ്പോൾ കൂടെ ഞങ്ങൾ ആറ് പേരുണ്ടായിരുന്നു ആ ആറ് പേരിൽ നടുക്കാണ് ഞാൻ നിന്നത് എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവന്മാരുടെ കയ്യിൽ പിടിച്ചത് കാരണം എല്ലാവരും അറ്റൻഷൻ ആയത് കാരണം എനിക്ക് പ്രത്യേകിച്ച് ഭയം ഒന്നും തോന്നിയില്ല പിന്നെ പാടുക എന്നത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല പാടുക എന്നത് എല്ലാവർക്കും സാധിക്കുമെങ്കിലും മധുരമായി പാടാൻ സാധിക്കുന്നവർ കുറവായിരിക്കും അതുകൊണ്ടുതന്നെ അത് ഒരു അനുഗ്രഹമായി കണ്ടിട്ടുള്ളതുകൊണ്ട് പാടുന്നതിൽ ഭയമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല എന്നാലും അധികം സ്റ്റേജിലൊന്നും പാടിയിട്ടില്ല അഥവാ ഒരു വർഷം ഇതുപോലെ സ്റ്റേജിൽ കയറിയപ്പം ചെറിയ ഒരു ഭയം തോന്നിയ അവസരത്തിൽ കൂടെ നിൽക്കന്നവന്മാരുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ അത് മറികടക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ പാടേണ്ടി വന്നിട്ടുള്ളത് പള്ളിയിൽ ആരാധനയുടെ സമയത്താണ് ആ സമയത്ത് ദൈവത്തിൻ്റെ മുമ്പിലാണല്ലോ പാടുന്നത് പുള്ളിക്കാരന് എത്ര അരൗചകമാണെങ്കിലും ക്ഷമിച്ചുകൊള്ളും എന്നുള്ള ധൈര്യത്തിലാണ് പാടിയിട്ടുള്ളത് അതുകൊണ്ട് അത് ഒരു അങ്ങനെ ഭയവും പരിഭവവും ഒക്കെ വന്ന സമയങ്ങളിൽ തരണം ചെയ്യാൻ വേണ്ടി സഹായിച്ച ഒരു ഘടകമാണ് അത് അല്ലാതെ വീടും ഹരിപ്പാടിനടുത്ത് ആണെങ്കിലും ഹരിപ്പാട്ട് ഞാൻ പാടിയിട്ടില്ല അടുത്ത് തന്നെ വള്ളം മാറ്റുന്ന സ്ഥലമാണ് പള്ളിപ്പാട് പള്ളിപ്പാട്ട് മാത്രമേ ഞാൻ പാടിയിട്ടുള്ളൂ ഹരിപ്പാട്ടു കാരനാണെങ്കിലും അല്ലാതെ വേറെ പാട്ടുകളൊന്നും ഞാൻ പാടിയിട്ടില്ല അപ്പോൾ ഹരിപ്പാടിന് ഒത്തിരി പ്രാധാന്യമുണ്ട് കാരണം സംഗീതത്തിൽ പ്രധാന അതായത് മലയാള സംഗീതത്തിൽ വളരെ പ്രശസ്തരായ പല അംഗങ്ങളൂം പല ആളുകൾ ഹരിപ്പാടുള്ളവരാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് ഒരു സിവിൽ എഞ്ചിനിയറും അതിലൊട്ടുപരി മലയാളത്തിലെ അറിയപ്പെടുന്ന സംഗീത സംവിധായകനും സംഗീത രചയിതാവുമായ സോറി ഗാനരചയിതാവുമായ ശ്രീ ശ്രീകുമാരൻതമ്പി സാറ് അദ്ദേഹത്തിൻ്റെ സ്ഥലം ഹരിപ്പാടാണ് അതുപോലെത്തന്നെ എം ജി ശ്രീകുമാറ് എം ജി രാധാകൃഷ്ണൻ അവരുടെ സഹോദരി അങ്ങനെ സംഗീതത്തിന് വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ് ഹരിപ്പാട് എന്നാലും ഹരിപ്പാട്ടുകാരനായ എനിക്ക് സ്റ്റേജ് പേടിച്ച് പാടേണ്ട അവസരം അതുപോലെ അധികമൊന്നും ഉണ്ടായിട്ടില്ല